വിവാഹത്തിൽ ആളുകൾ നോർമലി കൂടുതലായും പണം തന്നെയാണ് സംഭാവനയായി നൽകുന്നത് എന്നാൽ സ്വർണാഭരണങ്ങളോ ഉപയോഗവസ്തുക്കളോ തുണിത്തരങ്ങളോ എല്ലാം സമ്മാനമായി നൽകുന്നത് സ്വാഭാവികമായ ഒരു പ്രവർത്തിയായി ഇന്ന് നാം കണ്ടു വരാറുണ്ട് നമ്മുടെ വിവാഹത്തിന് വിവാഹിതരാകുന്ന വ്യക്തികളുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് നമ്മുടെ സമ്മാനങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വിവാഹിതയാകുന്ന വ്യക്തിയുമായി അടുത്ത ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉയർന്ന തുകയോ സ്വർണഭരണങ്ങളോ സംഭാവനയായി നൽകാറുണ്ട് എന്നാൽ അവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചു നാം മറ്റു തുണിത്തരങ്ങളോ മറ്റു ഉപയോഗ വസ്തുക്കളോ എല്ലാം സംഭാവനയായി നൽകുക എന്നുള്ളത് സമ്മാനമായി നൽകുക എന്നുള്ളത് വിവാഹത്തിൻ്റെ പ്രത്യേകതയാണ് സ്ത്രീധനം എന്ന പേരിൽ നമ്മൾ ഒന്നും നൽകാറില്ല എങ്കിൽ പോലും സ്ത്രീകളുടെ കുടുംബത്തിൽ നിന്നും അവരെ നമ്മൾ ജീവിതാവശ്യങ്ങൾക്കായി മറ്റൊരു വീട്ടിലേക്ക് നൽകുക എന്നുള്ളതുകൊണ്ട് അവരുടെ ജീവിത പശ്ചാത്തലത്തിനാവശ്യമായ വേണ്ട സഹായങ്ങൾ പലരീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത് ഉണ്ട് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കണ്ടുവരുന്ന പ്രത്യേകതയാണ് അവർക്ക് വീടായോ ഇല്ലെങ്കിൽ വീട് വയ്ക്കുമ്പോൾ വേണ്ട സഹായങ്ങളോ ഇല്ലെങ്കിൽ വാഹനമായോ ഇല്ലെങ്കിൽ വേണ്ട സാഹചര്യങ്ങളിൽ സമ്മാനമായോ ഇല്ലേ മക്കൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളായോ മാതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നോർമൽ സാഹചര്യങ്ങളാണ് അത് ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിനെയും വീട്ടുകാരുടെയും ബാധ്യതയായി തന്നെ നിൽക്കുന്നു നമ്മുടെ സഹകരണത്തിൻ്റെ പ്രതീകമായി ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊടുത്ത് പ്രത്യേകിച്ച് വിവാഹം എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെ നിർമ്മിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അതിനുവേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മുടെ ഒരു സഹകരണത്തിൻ്റെ ഭാഗമായതു കൊണ്ടും വിവാഹത്തിൽ വേണ്ട രീതിയിൽ സഹകരിക്കുകയും പല രീതികളിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു കൊണ്ട് വിവാഹബന്ധങ്ങൾക്ക് ഊഷ്മളമായ ആശംസകൾ നൽകുന്നത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലമായി മാറിയിട്ടുണ്ട്